ഇന്ത്യയിലെ പ്രശസ്തമായ നൃത്ത ശൈലികളെന്ന് പറയുന്നത് കുറേ ഉണ്ട് അതിലൊന്നാണ് മാർഗ്ഗങ്കളി കുച്ചിപ്പുടി തിരുവാതിര ഓട്ടന്തുള്ളൽ ഇതെല്ലാം തന്നെ മലയാളത്തിലെ നല്ല മലയാളത്തിലെ പ്രധാനപ്പെട്ട നൃത്തങ്ങളാണ് അപ്പം ഇത് പാരമ്പരാ പാരമ്പര്യമായിത്തന്നെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന നൃത്തങ്ങളിലൊന്നാണ് ഈ പറയുന്ന കൂടിയപ്പം ഇതൊക്കെയാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പ്രശസ്തമായ നൃത്ത ശൈലികളെന്ന് പറയുന്നത് അതിപ്പം ഓരോ സംസ്ഥാനത്ത് വ്യത്യസ്തമായിരിക്കും കേരളത്തിലെയാണ് ഈ പറഞ്ഞതൊക്കെ ഇനി നോർത്തിലോട്ടൊക്കെ പോകുകയാണെങ്കിലും അത് ഓരോ സംസ്ഥാനമനുസരിച്ചല്ലെങ്കിൽ ഓരോ